സിനിമയിലെ വസ്ത്രധാരണങ്ങളും പിന്നെ ഫാഷനും എല്ലാം നമ്മുടെ നമ്മളെ ചെറിയ രീതിയിൽ ചെറിയ പ്രായത്തില് തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ ആ പിന്നെ നമ്മൾ കമ്മലും മാലയും ബോയും കുഞ്ഞായിരുന്നപ്പോൾ ഒക്കെയുള്ള സിനിമ ചെറിയ കുഞ്ഞ് കൊച്ചുങ്ങളുടെ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മളതുപോലെയൊക്കെ വാങ്ങാനൊക്കെ അ നോക്കിയിട്ടുണ്ട് അതുപോലെത്തന്നെ ഇപ്പോൾ പിന്നെ പല ഡ്രസ്സുകളും പല മോഡലുകളും കാണുമ്പോൾ വളരെയധികം ഇഷ്ടം തോന്നാറുണ്ട് അപ്പോൾ നമ്മളത് കടയിൽ നിന്നൊക്കെ അത് കാണുമ്പോൾ വാങ്ങാറുമുണ്ട് ധാരാളം ഇതുപോലെ വാങ്ങിയിട്ടുണ്ട് കമ്മലുകൾ മാല ആ പിന്നെ പല മോഡലുകൾ പിന്നെ തലയൊക്കെ കെട്ടുന്നതും എല്ലാം ഒക്കെ നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് സിനിമയിലെ നായികയുടെ ഡ്രസ്സ് ചുരിദാർ വളരെയധികം ആ സ്വ ന്ന വളരെയധികം ഇഷ്ടമായ ഒരു ഡ്രെസ്സായിരുന്നു അത് ധാരാളം ആ ചുരിദാർ എന്നെ ഒരു നാലഞ്ച് ചുരിദാർ അത് കണ്ടിട്ടിട്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ പിന്നെ സാരി പല മോഡലെ സാരി സാരികൾ നല്ല ഭംഗിയുള്ള സാരികളൊക്കെ കാണുമ്പോൾ ആ കടയില് പോകുമ്പോൾ അതുപോലെയൊക്കെ നോക്കാറുണ്ട് അതുപോലത്തെ സരികളൊക്കെ ഉണ്ടെങ്കില് നമ്മൾ വാങ്ങാറുമുണ്ട് പിന്നെ